ഈ വ്യാപാരവും വാണിജ്യവും ഉൾപ്പെടെയുള്ള പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥയിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാപാരത്തിന് വ്യാപാരമെന്നു പറയുമ്പോൾ ഏതു രീതിയിലുള്ള വ്യാപാരം അതിനകത്തു വരുമല്ലോ അപ്പം അതിനകത്തു നിന്ന് വ്യാപാരമെന്നു പറയുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപാരം നമുക്ക് കുരുമുളക് ഏലം കാപ്പിക്കുരു ഇഞ്ചി ഏലക്കായ് അങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് വ്യാപാര സാധനങ്ങളുണ്ട് അപ്പോൾ അത് മലയാള ഭാഷ ഉപയോഗിക്കപ്പെടുന്നത് എങ്ങനെയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം അതിനകത്ത് സാധാരണക്കാരായ ആൾക്കാരായ ആളുകൾ താമസിക്കുന്ന ജില്ലയിൽ അപ്പം നമ്മളൊരു സാധനം കടയിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ആ സാധനം നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഏലക്കായുണ്ട് എത്ര കിലോയുണ്ട് അതിൻ്റെ പിന്നെ രൂപ എത്രയാണ് ഒരു കിലോയ്ക്ക് വരുന്ന രൂപ എത്രയാണ് അപ്പം അതെങ്ങനെയാണ് നമുക്കതിനനുസരിച്ച് എത്ര പൈസ കിട്ടും അത് എപ്പോഴാണ് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഭാഷ ഉപയോഗിക്കേണ്ട അതായത് ഹിന്ദിക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം എന്താണെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ അവർ വ്യാപാരികൾ എല്ലാവരും തന്നെ മലയാള ഭാഷ ഉപയോഗിക്കുന്നവരാണ് ഇപ്പം ഈ മലയാള ഭാഷ ഇവയിലാണ് വ്യാപാരിയും നമ്മൾ വിൽക്കാൻ ചെല്ലുന്ന ആളുകളുമെല്ലാം മലയാള ഭാഷ നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചു കൂടി വ്യക്തത വരുന്നതിനും കുറച്ചു കൂടി വ്യാപാരം നടക്കുന്നതിനൊക്കെ മലയാള ഭാഷ ഉപയോഗിക്കപ്പെടുന്നുണ്ട്